ഞാൻ വർഷങ്ങളായി ഓൺ ലൈൻ ആയിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത് അരുൺകുമാർ ഗാന്ധിനഗർ തലയോരപ്പറമ്പ് പി ഓ കോട്ടയം എന്ന അഡ്രസ്സിലായിരുന്നു അപ്പോൾ ഞാൻ നിലവിൽ ഓർഡർ ചെയ്തത് ഈ അഡ്രസ്സിൽ ആണ് പക്ഷെ ഞാൻ ഇപ്പം ജോലി സംബന്ധമായിട്ട് ഒരു പത്തു ഇരുപത് കിലോ മീറ്റർ അപ്പുറം മാറിയാണ് താമസിക്കുന്നത് ഓൺ ലൈൻ ആയിട്ട് ഓർഡർ ചെയ്തതിന് ശേഷമാണ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചത് അപ്പോൾ എനിക്ക് അശോക് കുമാർ മീനടം പി ഓ കോട്ടയം എന്ന അഡ്രസ്സിലാണ് ഡെലിവറി ചെയ്യേണ്ടത് അത് നിലവിൽ സിറ്റിയിൽ നിന്നും ഇച്ചിരി ഉള്ളിലോട്ട് കയറിയുള്ള ഗ്രാമീണ പ്രദേശമാണ് ഞാൻ ഇതിനകത്ത് എൻ്റെ മൊബൈൽ നമ്പരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഡെലിവറി എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വന്ന് കളക്റ്റ് ചെയ്തോളാം